എനിക്ക് ഈ മലയാളത്തില് ഈ മെലഡി സോങ്ങുകൾ ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം ആണ് അപ്പോൾ ഞാൻ പുറമെ ഉള്ള പാട്ടുകൾ ഒക്കെ കേൾക്കാറുണ്ട് അത് സാധാരണ ആയിട്ട് ഞാൻ ഈ ടിവിയില് ഒക്കെയാ കേൾക്കുക ഇനി ടി വി ല് കേട്ടില്ല എന്ന് ഉണ്ടെങ്കില് മൊബൈൽ ഫോൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പാട്ട്പെട്ടി അങ്ങനെ ഉള്ള ചാനലുകൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മള് അതിനൊക്കെ ആണ് പാട്ട് സാധാരണ ആയിട്ട് കേൾക്കാറുള്ളത് ഒരുപാട് ഇഷ്ടമുള്ള മലയാളം സോങ്ങുകൾ ഒക്കെ ആണ് ഞാൻ കൂടുതൽ ആയിട്ടും മലയാളം പാട്ടുകള് പണ്ടത്തെ മലയാളം പാട്ടുകൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ്